സെൽഫ് ഹെൽപ് ഗ്രൂപ്പുകള് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് ചെറുകിട സാമ്പത്തിക ബാങ്കുകള് കുറി കമ്പനികള് അതുപോലെ സ്ത്രീകളുടെ കുടുംബശ്രീ പോലെയുള്ള സംഘങ്ങള് അക്ഷയാ കേന്ദ്രങ്ങള് ഇതൊക്കെയാണ് സെൽഫ് ആയിട്ട് കൂട്ടം കൂടി ഗ്രൂപ്പുകള് ഉണ്ടാക്കി ആ ഗ്രൂപ്പുകളിൽ എല്ലാവരും കൂടി എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിച്ച് അവരിൽ നിന്ന് സർക്കാര് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ഒരുപാട് ഒരുപാട് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികം കൊടുക്കുക ആണെങ്കിൽ അവർക്ക് നല്ല അവസരാവും അവരത് ഒക്കെ ചെയ്യാനും പറ്റും അവരത് അത് അതുകൊണ്ട് തന്നെ അവർക്കത് മൂന്നിലാവാൻ മുന്നേറാൻ പറ്റുകയും ചെയ്യും ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് മെയിനായിട്ട് സെൽഫ് മൈക്രോ ഫൈനാൻസുകളാണ് ഈ മൈക്രോ ഫൈനാൻസ് മുഴുവൻ സർക്കാർ കേന്ദ്രസർക്കാരിന്റെ ആയതുകൊണ്ട് അത് കുറച്ചും കൂടി നല്ല രീതീല് ഉള്ള നിയമാവലിയുടെ അടിസ്ഥാനത്തില് സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെ ഇടപെടലുകൾ ഇല്ലാതെ തട്ടിപ്പും തരികിടയും ഇല്ലാതെ അ അതിലയില് രാഷ്ട്രീയം കലർത്താതെ കൊണ്ട് നടക്കുകയാണെങ്കില് തൊഴിലൊക്കെ തൊഴിലിനു വേണ്ടി അതൊക്കെ നല്ല രീതിയില് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് ഗ്രൂപ്പുകളും അതെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കണത് മുഴുവൻ ഇപ്പോൾ സത്യത്തില് സ്ത്രീകളുടെ തൊഴില് നന്നാക്കാൻ വേണ്ടിട്ടോ തൊഴിലിനു വേണ്ടിയിട്ടോ അല്ല മറിച്ച് അത് രാഷ്ട്രീയ പാർട്ടിക്ക് ആ ഉണ്ടാക്കുന്ന പാർട്ടികളുടെ രാഷ്ട്രീയത്തിനുവേണ്ടി അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്കാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കണ കാര്യം അതുകൊണ്ടു തന്നെ അവരൊക്കെ സ്വന്തം സെൽഫ് ആയിട്ടുള്ള ഒരു ത തൊഴിലിനു വേണ്ടി അതിനുമാത്രം ആസ്പദമാക്കിക്കൊണ്ട് മുന്നേറാൻ അനുവദിക്കണില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മൈക്രോ ഫൈനാൻസ് തന്നെയാണ് ഇതിന് മാർഗങ്ങൾ ഉള്ളൂ ചെറുകിട സംരംഭങ്ങളെ ഉണ്ടാക്കുക എങ്കിൽ അതിനു വേണ്ട സാമ്പത്തികം വേണം ആ സാമ്പത്തികത്തിന് ഉള്ള അവസരങ്ങള് ഉണ്ടാക്കുക സാമ്പത്തികത്തിന് അവസരം ഉണ്ടാക്കിയാല് കിട്ടാൻ മാർഗ്ഗമുണ്ടാക്കിയാൽ തന്നെ സ്വന്തമായിട്ട് ഈ ഗ്രൂപ്പുകള് തന്നെ ഒരുപാട് ബിസിനസ് മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്